ഹലോ അതെ ആ ഉവ്വ

ആ ശരി നിങ്ങൾ എവിടെ വെച്ചാണ് സംഭവിച്ചത് നഷ്ടപ്പെട്ടത് ആ ശരി അപ്പം വേറെ കൂട്ടത്തിൽ വേറെ യാത്രക്കാരുണ്ടോ അ മെൻ അ അ ഉവ്വവ്വ അ ആ നമ്പര് അറിയാമോ ഒന്ന് പറയാമോ അ അ അ

ആ ഉവ്വ അ എന്നാൽ ഈ നമ്പറ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഫോണിലേക്ക് ആ നമ്മൾ ഈ കോൾ ഇപ്പോൾ കോൾ സെന്ററിലേക്ക് കൊടുത്താൽ കൊടുത്തിട്ടെ ഈ മാർട്ടിലേക്ക് എതെങ്കിലും കോള് വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കാം അപ്പം നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ അന്വേഷിച്ചിട്ട് നിങ്ങളെ വിളിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് വേറെ യാത്രക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അ ആ ഫോണ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഞങ്ങൾ അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് എത്രയും വേഗം നിങ്ങളെ വിളിക്കാം എ നിങ്ങളെ ഈ നമ്പറിലോട്ട് അത് വിളിച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ വേറെ ഫോണിൽനിന്ന് ഞാൻ വിളിക്കാം അ അപ്പം നിങ്ങൾ ഒരു റിട്ടൺ റിട്ടൻ ആയിട്ടൊരു ലെറ്ററുംകൂടെ തരണം പരാതിയെ ആ അത് ഞങ്ങൾ സ്റ്റേഷ ആ അത് ഞങ്ങൾ വെക്കും അത് സ്റ്റേഷനിലെ ആരെങ്കിലും പോലീസ്കാർ കാണും അവരുടെ കയ്യിൽ കൊടുത്തേച്ചാൽ മതി അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഫോണിൽക്കൂടെ പറഞ്ഞിട്ടുണ്ട് അത് ചെന്നവരോട് പറഞ്ഞേച്ചാൽമതി എ കേട്ടോ ഞങ്ങളെത്രയും വേഗം ഒന്ന് അന്വേഷിച്ച് കണ്ട് പിടിക്കാൻ ശ്രമിക്കാം ഏ പറ്റിയാൽ നിങ്ങളെ വിളിക്കുകയും ചെയ്യാം എത്രയും വേഗം വിളിക്കാം ആ ശരി